ആ ഇത് എ സ് കെ ഫ്ലവേഴ്സ് ആണോ ഞാൻ ഈ ആർ കെ വെഡ്ഡിംഗ് ആൻഡ് ഇവൻസ്ന്ന് വിളിക്കുകയാണ് ആ നമ്മൾക്ക് ഈ ഫെബ്രുവരി ഇരുപത്തെട്ടാം ന്തീ ആർ ഡി ആറിൽ വച്ചിട്ട് ഒരു കല്ല്യാണം ഉണ്ട് അപ്പോൾ അതിൽ എനിക്ക് സ്റ്റേജ് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് പൂക്കൾ ആവശ്യം ഉണ്ട് ആ ഇതിൻ്റെ രണ്ടിൻ്റെയും ബഡ്ജറ്റ് എങ്ങനെ വരും

ഓ ഓ

ആ ആ ആ അപ്പോൾ ഈ റിയലായിട്ടുള്ള പൂക്കൾക്കൊക്കെ എത്ര രൂപ ആവും ആ ആ ഈ ഈ ഒരു കല്ല്യാണത്തിന് തീം എന്ന് പറയുന്നത് ചുവപ്പ് നിറം ആണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ റോസാപൂ ആയിരിക്കും നല്ലത് അല്ലേ ഈ ചുവപ്പ് റോസാപൂ പിന്നെ താമര പിന്നെ കുറച്ച് ഗ്രീനും കൂടെ വേണമായിരുന്നു അപ്പോൾ അതും കൂടെ ഒന്ന് കയറ്റാം ആ ഈ റോസിനും താമരയ്ക്കും ഒക്കെ എത്ര രൂപ ആവും ഒരു അഞ്ഞൂറ് കിലോ റോസും ഉണ്ടാവോ താമര ഒരു മുന്നൂറ് എണ്ണം ആ പറഞ്ഞോളൂ

അതെ മുന്നൂറ് കിലോ അല്ല മുന്നൂറ് എണ്ണം ആണ് ആ ആ ആ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ കൂടെ പിങ്ക് കളർ ആയിരിക്കും കുറച്ച് കൂടെ നല്ലത് അത് മതി ആ ആ ഇനി എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടാവുമോ കാരണം നിങ്ങൾ ആ നിങ്ങളുടെ കയ്യിൽ നിന്നാണ് നമ്മൾ എപ്പോഴും വാങ്ങാറുള്ളത് ആ അത് മതി ആ അപ്പം ശരി ഇതിൻ്റെ ഒരു ഫുൾ എമൗണ്ടിൻ്റെ ഒരു എല്ലാം കൂടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്ത് തരാമോ ആ നമ്മൾക്ക് ഇരുപത്തെട്ടാം ന്തീ ആണ് കല്ല്യാണം ആർ ഡി ആറിൽ വച്ചിട്ട് അപ്പോൾ ഒരു ഇരുപത്തേഴ് വൈകിട്ട് ഒരു അഞ്ച് മണിക്ക് എങ്കിലും എത്തിക്കാൻ പറ്റുമോ ആ ഞാൻ രണ്ടുസം മുന്നേ തന്നെ വിളിക്കാം ആ ശരി ശരി